ഹലോ ഞാൻ ഈയിടെ ഈയിടെയായിട്ട് ഒരു വിവാഹ മോചനം നേടിയ വ്യക്തിയാണ് അപ്പോൾ എന്റെ പാന് കാഡ് എനിക്ക് എന്റെ പഴയ പേരിലേയ്ക്ക് ആദ്രാ ആക്കാനായിട്ട് ഞാന് ആഗ്രഹിക്കുന്നു അപ്പം അതിനുള്ള നിയമനടപടികൾ എങ്ങനെയാണ് നമ്മൾ എന്തൊക്കെ രേഖകളാണ് സമര്പ്പിക്കാനുള്ളത് അതിന്റെ കാര്യങ്ങളൊക്കെ എവിടെയാണ് അന്വേഷിക്കേണ്ടത് സമര്പ്പിക്കേണ്ടത് എവിടെയാണ് എങ്ങനെയാണ് എത്ര കാലയളവിലാണ് അതൊക്കെ ഒന്നറിഞ്ഞാല് കൊള്ളാമെന്നുണ്ട് അപ്പം ആ വിവരങ്ങളൊന്ന് നല്കിയിരുന്നെങ്കിൽ ഉപകാരപ്രദമായിരുന്നു ഇപ്പോൾ എനിക്ക് അതിലേക്ക് പോകാനായിട്ട് എന്തൊക്കെ ഡോക്കുമെന്റ്സ്കൾ നമ്മൾ സമര്പ്പിക്കണം

ഇപ്പം വിവാഹമോചനം നേടിയിരിക്കുന്ന ഈ അവസ്ഥയിൽ എനിക്ക് മറ്റെന്തൊക്കെ രേഖകളിൽ പേരുകൾ മാറ്റേണ്ടത് ഉള്ളതായിട്ടുണ്ട് അതും കൂടിയൊക്കെ ഒന്ന് അറിയിച്ചാൽ നല്ലതായിരുന്നു ഇനിയും എനിക്ക് ആ ആർക്കെങ്കിലും ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതൊന്ന് ചെയ്യാന് പറ്റും അതുകൊണ്ട് എന്ന് അയാ ഡീറ്റെയ്ല്സെക്കെ ആ വിവരങ്ങളൊന്നു അറിയിക്കാനായിട്ട് താല്പ്പര്യപ്പെടുന്നു